ഞാൻ ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാറ് എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ് ആ ഞാൻ ജോലി ഫ്രീ ആകുന്ന സമയത്തും കാര്യങ്ങളും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടു പിടിക്കുകയും ട്രിപ്പ് പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ട് ഞാൻ കഴിവതും ഞാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഒഴിവു ദിവസങ്ങളിൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകാറുണ്ട് ഞാൻ ഈ ഇടക്ക് പോയ സ്ഥലങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോയി അതുവഴി തമിഴ്നാട് പോയി മൂന്നാറ് പോയി വാഗമൺ പോയി കമ്പം തേനി തമിഴ്നാടിനു പോയി പോയ സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് നമുക്ക് വീണ്ടും വീണ്ടും പോകാനും കാണാനും തോന്നുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ബൈക്ക് യാത്ര ഓഫ് റോഡിങ് താല്പര്യമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതിരപ്പള്ളി വാഴച്ചാല് നമുക്ക് എടുത്തു പറയേണ്ടേ റൂട്ട് തന്നെയാണ് നല്ല അടി അതിമനോഹരമായ റൂട്ട് തന്നെയാണ് ഇഷ്ടംപോലെ വോനോദസഞ്ചാരികൾ വരുന്ന സ്ഥലമാണ് വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴോട്ട് നമുക്ക് ഇറങ്ങി പോകാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്നതിലും ഭംഗി നമുക്ക് താഴെ ഇറങ്ങി ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമായ കാഴ്ച തന്നെയാണത് അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് കാട്ടിലൂടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് സഞ്ചരിക്കാൻ പറ്റും ആറു മണിക്ക് ശേഷം നമ്മളെ കടത്തി വിടില്ല പോകുമ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ വൈകുന്നേരം ആറുമണിക്കുള്ളിൽ തന്നെ നമ്മൾ തിരിച്ച് ബോർഡർ കടക്കുന്ന രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ പോകുന്ന വഴിക്ക് നമുക്ക് ആന കാട്ടുമൃഗങ്ങളെ വന്യ മൃഗങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പോകുന്നവർ എപ്പോഴും ആന ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെ പോകണം എപ്പോൾ വേണമെങ്കലും കാട്ടാന ഇറങ്ങി വരാൻ ചാൻസുള്ള സ്ഥലം തന്നെയാണ് ശ്രദ്ധിച്ചു പോവുക അതുപോലെ തന്നെ മൂന്നാറ് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ ഒരു ദിവസം പോയി വരിക സാധിക്കുക നല്ലത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ഡേ അല്ലെങ്കിൽ രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്യുന്നതാണ് കാരണം മൂന്നാറിലെ ക്ലൈമറ്റ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തണുപ്പിപ്പോൾ ഡിസംബർ ജനുവരി ഒക്കെ ആകുന്ന സമയങ്ങളിൽ മൈനസിൽ വരുന്ന സമായമാണ് അതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാറ് നമ്മളൊരിക്കലും മറക്കേലാത്തൊരു സ്ഥലമാണ് കാരണം മൈനസ് ഇതിൽ ഒരു സ്ഥലം കേരളത്തിൽ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫാമിലിയായിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോയി വൺ നൈറ്റ് സ്റ്റേ അടിക്കുക പ്രത്യേകിച്ച് രാവിലെ ഇറങ്ങുക ത നല്ല തണുപ്പെന്നു പറഞ്ഞാൽ നല്ല തണുപ്പാണ് ആ തണുപ്പിലൂടെ നമ്മളൊന്ന് മോർണിംഗ് വോക്കോ കാര്യങ്ങളോ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് മൂന്നാറില് കാണാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിങ് ബൈക്കിൽ പോകുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ ജീപ്പിൽ ട്രെക്കിങ്ങിനു പോകാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് മൂന്നാറ് പിന്നെ അതുപോലെ തന്നെ ഒരു എടുത്തു പറയേണ്ട സ്ഥലമാണ് ഇടുക്കി ഇടുക്കിയിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് മെയിനായിട്ട് നമ്മുടെ ഇടുക്കി ഡാം അഞ്ചുരുളി അതുവഴി നമുക്ക് തമിഴ്നാട് പോകുകയാണെന്നുണ്ടെങ്കിൽ കമ്പം തേനി മുന്തിരി തോട്ടം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും ഫാമിലിയായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം സ്റ്റേ ഒക്കെ അടിച്ച് രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇടുക്കി അണക്കെട്ട് ഇടുക്കി ഡാം നമുക്ക് അറിയാം ആർച്ച് ഡാം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്സെടുത്ത് കയറി കാണുവാൻ സാധിക്കും അല്ലാത്ത സമയങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് ഇടുക്കി ഡാം പ്ലാൻ ചെയ്യുന്നത് നമുക്കാ ഓപ്പണിങ് സമയങ്ങളിൽ പോകാൻ ശ്രദ്ധിക്കുക കഴിവതും അതുപോലെ തന്നെ അഞ്ചുരുളി വെള്ളമുള്ള സമയത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല ഉരുളി കമിഴ്ത്തിയ പോലെ ഇരിക്കും ചെറിയ മണ്ണിൻ്റെ ചെറിയൊരു എന്താ പറയുക ഒരു ഐലൻ്റ് പോലെ എന്നു പറയാൻ പറ്റും അതായത് ഡാമിനുള്ളിൽ ചെറിയ ഐലൻ്റ് പോലെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ അഞ്ചുരുളി കമിഴ്ത്തിയ പോലെ നമുക്ക് ഫീല് ചെയ്യുന്നതു കൊണ്ടാണ് അഞ്ചുരുളി അഞ്ചുരുളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇടുക്കി ഡാമിൽ നിന്ന് ടണൽ വഴി വെള്ളം കൊണ്ടു വന്ന് ചാടിക്കുന്ന സ്ഥലം കൂടിയാണ് അഞ്ചുരുളി ഇടുക്കിയിൽ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതു പോലെ ഓഫ് റോഡിങ് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് എസ്റ്റേറ്റുകളുണ്ട് ട്രെക്കിങ് താത്പര്യമുള്ളവർക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ആ സ്ഥലങ്ങളെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് പോയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂ കമ്പം തേനി തമിഴ്നാട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ മുന്തിരിത്തോട്ടം അറിയാം മുന്തിരി മുന്തിരി തോട്ടം നമ്മുടെ പിന്നെ നാട്ടിലൊന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് ഇഷ്ടംപോലെ കമ്പം മെയിനായിട്ടും കമ്പം മെയിനായിട്ട് കമ്പത്ത് ഇഷ്ടംപോലെ മുന്തിരി തോട്ടങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് മുന്തിരി വാങ്ങിക്കാൻ സാധിക്കും കാണാൻ ഫാമിലിയായിട്ട് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നമുക്ക് വൈഗ ഡാം കാണാൻ പറ്റിയ സ്ഥലമാണ് കാരണം അതിൻ്റെ ഡാമിൻ്റെ തൊട്ടടുത്തുവരെ പോയി നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ അതിങ്ങനെ കിലോ മീറ്ററോളം നമുക്കിങ്ങനെ എക്സ്പാൻ്റ് ചെയ്ത് കിടക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് നമ്മൾ ഇടുക്കി ഡാമോ കാര്യങ്ങളോ കാണുന്നതു പോലെയുള്ളൊരു രീതിയല്ല നല്ല കാറ്റ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വൈഗ ഡാമെന്നു പറയുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ടും ഞാൻ ഈ ഇടക്ക് പോയ സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലയിലും ഇതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് നമ്മളത് സ്റ്റഡി ചെയ്ത് ട്രെക്കിങ്ങ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പോവുക പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ട് കണ്ട് ആസ്വദിച്ച് തിരിച്ച് പോരാൻ സാധിക്കും